ആ ജാസ്മിൻ ആണ് ആ ഞാൻ തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഇല്ല ഇല്ല ബുക്ക് ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചതാണ് ഓക്കെ ഓക്കെ ആ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം എൻ്റെ കസിൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട് അപ്പം നല്ല റിവ്യു ആണ് മാം പാർലറിനെപ്പറ്റി നല്ല റിവ്യു ആണ് കേട്ടിട്ടുള്ളത് മ് പിന്നേ പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ എങ്ങനെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ

ഞാൻ ഉദ്ദേശിക്കുന്നത് പെഡിക്യൂർ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓക്കെ ഓക്കെ ഈ മാസം ലാസ്റ്റ് എൻ്റെ മ്യാരേജ് ആണ് അപ്പം എനിക്ക് നല്ല രീതിക്കുള്ള ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്

ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ വരുന്നത് ഓക്കെ ഓക്കെ എനിക്ക് റേറ്റ് ഒരു പ്രശ്നമല്ല ഓക്കെ റേറ്റ് എനിക്ക് പ്രശ്നമല്ല റേറ്റ് എത്രയായാലും കുഴപ്പമില്ല ഈ മൂന്ന് അതായത് മാനിക്യൂർ പെഡിക്യൂർ ഹൈഡ്രാ ഫേഷ്യൽ ഇത് മൂന്നും ഉണ്ടാവും ഒരു പാക്കേജിൽ അല്ലേ പാക്കേജ് ആണ് ഓക്കെ ഓക്കെ ആ ഗെറ്റ് ടുഗദർ ആ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരാഴ്ച ഒരാഴ്ച എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ബ്രൈഡ് ടു ബി അങ്ങനെ ഒക്കെ കുറച്ച് ഫംഗ്ഷൻസ് വരുന്നുണ്ട് അപ്പം അതിനും ചെയ്യണം ഓക്കെ ഓക്കെ മാം പിന്നെ ആ അറിയാൻ പറ്റും ഇ ആ എ എൻ്റെ ഓയിലി സ്കിൻ ആണ് കാരണം എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് വരുന്നുണ്ട് നല്ലതാണോ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കസിൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാമെന്നാണ് അവർ കൂടുതലും എന്നോട് പ്രിഫർ ചെയ്തത് അതിന് പിന്നെ ഇവിടെ ആവുമ്പോൾ പ്രൊഡക്റ്റ്സ് കാര്യങ്ങളൊന്നും പേടിക്കേണ്ട നല്ല ഇതാണെന്നുള്ളത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത് ഓക്കെ ഓക്കെ മാം മാം വാട്സപ്പ് നമ്പർ ഒന്ന് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയയ്ക്കേനു ഓക്കെ മാം ഓക്കെ താങ്ക് യൂ മാം